എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള നോവലാണ് ഏറ്റവും പ്രിയ്യപ്പെട്ട എന്നോട് എന്നുള്ള നിമ്നാ വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ള എഴുത്തുകാരിയുടേത് അത് മുന്നൂറ്റി അൻപത് രൂപയാണ് ആയിട്ടുള്ളത് പക്ഷേ അത് ഏറ്റവും കൂടുതൽ ഇൻറ്റർനെറ്റിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെല്ലാം അത് തിരയടിച്ചോണ്ടിരിക്കുന്നൊരു സമയമാണിപ്പോൾ അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു മുന്നൂറ്റി അൻപത് രൂപ അത് ലാഭമാണ് എന്ത് കൊണ്ടും വായനക്ക് ഉചിതമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്ന രീതിയിലുള്ളൊരു നോവലാണ് ഇത് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റ് മുന്നൂറ്റി അൻപത് രൂപക്ക് വാങ്ങിയതിൽ എനിക്ക് നഷ്ടമൊന്നും തോന്നുന്നില്ല ഒരു നല്ല പ്രോഡക്റ്റ് തന്നെയാണ് ഏറ്റവും പ്രിയ്യപ്പെട്ട എന്നോട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ നോവൽ